വയറളക്കം എന്നൊക്കെ പറയുന്നത് നമുക്ക് പല കാരണങ്ങളും ഉണ്ടാവും നമ്മള് കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് മെയിൻ ഒന്ന് വൃത്തിയില്ലാത്ത സാഹചര്യത്തിലോ വൃത്തിയില്ലാത്ത വെള്ളത്തിലോ കേടു കൂടിയ സാധനങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് മൂലം ദഹനം ശരിയായിട്ട് നടക്കാതോ മൂലം ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ട് നമുക്ക് വയറിളക്കം ഉണ്ടാവും ഇത് ഇപ്പം പെട്ടെന്നൊരു അത്യാവശ്യ സാഹചര്യത്തില് വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോ ഉള്ള ദൂരം കൂടുതലാണെങ്കിലോ ഇപ്പോൾ രാത്രി സമയമാണെങ്കിലൊ ഒക്കെ നമ്മൾ വീട്ടില് ഒരു പരിധിവരെ നമുക്ക് അതിനെ കൺട്രോൽ ചെയ്യാൻ പറ്റും ചെറിയ ചൂടുള്ള കഞ്ഞിവെള്ളം കുടിക്കുക അതുപോലെ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കുക കട്ടൻ ചായയില് ഉപ്പിട്ട് കുടിക്കുക ഇതു അല്ലെങ്കില് കട്ടൻ ചായയില് ഉപ്പും ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞ് കഴിക്കുന്നതും ഒരു പരിധി വരെ നമുക്കത് കൺട്രോൽ ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമുക്കിങ്ങനൊരു അവസ്ഥ വന്ന് കഴിയുമ്പം ഹോസ്പിറ്റല് വരെ പോകണം അത് അത്യാവശ്യം ഇച്ചിരി ദൂരം കൂടുതലാണ് പെട്ടെന്ന് എത്തില്ല ഏഹ് എന്നുണ്ടെങ്കില് നമുക്ക് ഈ അവസ്ഥയില് എന്തായാലും പെട്ടെന്ന് ഓടിയങ്ങ് പോവാൻ പറ്റില്ല അപ്പം നമുക്ക് ചെയ്ത് ജസ്റ്റ് കൺട്രോൾ ചെയ്ത് കൊ നിർത്താം എന്ന് മാത്രം ഒരിക്കലും ഇത് നല്ലൊരു ശ്വാശ്വതമായിട്ടുള്ള പരിഹാരാണെന്ന് ഞാൻ പറയില്ല പറ്റില്ലാന്ന് കണ്ട് കഴിഞ്ഞാൽ എന്തായാലും ഹോസ്പിറ്റലിൽ കാണിച്ച് നല്ല മരുന്ന് വാങ്ങുക തന്നെ ചെയ്യണം